എൻ്റെ സംസ്ഥാനത്തിലെ എന്നുകഴിഞ്ഞാൽ വസ്ത്രധാരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ടും പഴയ ആൾക്കാർ കൂടുതലായിട്ടും അതായത് ആദിവാസികൾ ഇപ്പോഴും സാരിയും അങ്ങനത്തെ ഇത് മാത്രമാണ് കെട്ടുന്നത് പക്ഷേ നമ്മുടെ ഒരു അതായത് കുറച്ച് കൂടിയ ജാതിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്ത് അതായത് അവർക്ക് മാത്രമാണ് സെറ്റ് സാരി അങ്ങൻത്തെ കുറച്ചു സാരികൾ ഉണ്ട് അപ്പോൾ അതൊക്കെയാണ് അവർ കൂടുതലായിട്ടും വേഷങ്ങൾ കെട്ടുന്നത് പിന്നീടത് മാറ്റങ്ങൾ വന്ന് ഇപ്പോൾ ജീൻസ് ടോപ് അങ്ങനത്തെയുള്ള കുറച്ച് ന്യൂ ജനറേഷൻ വേഷങ്ങളാണിപ്പോൾ കൂടുതലായിട്ടും ആൾക്കാർ കെട്ടുന്നത് ആഭരണങ്ങൾ എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ പണ്ട് എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ എല്ലാരെയും കാണിക്കാൻ വേണ്ടിട്ട് അതായത് എൻ്റെ കയ്യിൽ ഇത്രയും സ്വർണമുണ്ടെന്ന് കാണിക്കാൻ വേണ്ടീട്ട് വലിയ മാലകൾ കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് പക്ഷേ ഇപ്പോഴത്തെ കാലത്തങ്ങനെ സ്വർണോം കര്യങ്ങളങ്ങനെ ഉപയോഗിക്കുന്നത് വളരെ കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കൂടുതലായിട്ടും പണയം വെക്കാനൊക്കെ ആയിട്ടാണ് ആഭരണങ്ങൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് പിന്നെ പലതരം സമുദായങ്ങളിൽ ഉള്ളതും എന്നു പറഞ്ഞാൽ ഇപ്പം ഹിന്ദു ഹിന്ദു സമുദായത്തിലാണ് കൂടുതലായിട്ടും ആഭരണങ്ങൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്